ശരിക്ക് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാന് എന്റെ ഔദ്യോഗിക ജീവിതത്തില്നിന്ന് വിരമിച്ചിരിക്കയാണ് എനിക്ക് കുറേയധികം യാത്രകള് നടത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ പാസ്പ്പോട്ട് ശരിക്ക് പറഞ്ഞെന്നാല് ഇപ്പോഴത്തെ ഒരു വിരമിച്ച് കഴിഞ്ഞുള്ള ഒരു സ്റ്റാറ്റസ്സ് വച്ച് അതൊന്നപ്ഡേറ്റേയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടുന്ന പ്രക്രിയകളെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരാമോ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളും നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് ശേഷം അങ്ങനെ പാസ്പ്പോട്ട് അപ്ഡേറ്റെയ്യേം നല്ല ഒരു യാത്ര ചെയ്യുകയും ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞുകേട്ടിട്ടുണ്ട് അതിന്റെ നല്ല തിരിച്ച് വന്നിട്ട് അതിന്റെ നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത് ഞാനോർക്കുന്നുണ്ട് അപ്പോള് അതുപോലൊരു നല്ലനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് എന്നെയും കൂടെയൊന്ന് സഹായിക്കാമോ